മലയാളത്തില് ഞാന് ചില വാക്കുകളൊക്കെ പറയുമ്പോള് നമുക്കത് പെട്ടെന്ന് കിട്ടാതെയെക്കെ വരും ചില വാക്കുകള് ഴ കൂട്ടിയുള്ളതോ അങ്ങനെയെന്തോ ചില വാക്കുകളൊക്കെ നമ്മള് പെട്ടെന്നൊക്കെ സംസാരിക്കേണ്ടിവരുമ്പോള് എന്താണ് ഒരു സെന്റൻസ് പാരഗ്രാഫൊക്കെ പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോള് എനിക്ക് ചിലപ്പോള് ബൈബിളൊക്കെ വായിക്കുമ്പോഴായിരിക്കും നമ്മള് സ്പീഡിലങ്ങോട്ട് വായിച്ച് വരുമ്പോഴായിരിക്കും ചില വാക്കുകളുടെ നമുക്ക് കിട്ടാതെയൊക്കെ വരുന്നത് അതുപോലെതന്നെ നമ്മള് മലയാളം കുറേനാള് എഴുതാതൊക്കെയിരുന്ന് പിന്നീട് പെട്ടെന്ന് എഴുതുമ്പോഴാണെങ്കിലും നമുക്ക് ആ എന്നാ ചിഹ്നങ്ങള് എവിടെയാണ് ഇടേണ്ടത് എവിടെയിടണം ഏത് സ്ഥലത്താണ് ഇടേണ്ടെന്നുള്ള സ്റ്റേജൊക്കെ വരുമ്പോള് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയൊരു ഇതുണ്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മള്ക്കു കിട്ടാഴിക വരും ഒരു വാക്കു തന്നെ നമ്മള് അത് വീണ്ടും ചിലപ്പോള് പറയും അങ്ങനത്തെയൊരു മിസ്റ്റേക്കുകള് അവിടെ സംഭവിക്കുന്നുണ്ട് അത്